ജോസഫിന് കൃഷിയെ കുറിച്ച് ഒരു കുറച്ച് കാര്യങ്ങൾ ഒന്ന് പറയാമോ ഞാൻ നെൽക്കൃഷിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഒരു വർഷം അറുപത് ഏക്കറ് വിസ്തീർണമുള്ള പാടശേഖരമാണ് ഞാൻ ചെയ്യുന്നത് അതിൽ എനിക്ക് പതിനഞ്ചേക്കർ നെൽ നെൽക്കൃഷി സ്ഥലമുണ്ട് അപ്പോൾ അതിൻ്റെ പാടശേഖരത്തിൻ്റെ സെക്രട്ടറിയും അഡ്മയറുമെല്ലാം ഞാൻ തന്നെയാണ് നൂറ്റി ഇരുപത് ദിവസം മൂപ്പുള്ള നെൽവിത്താണ് ഞാൻ കൃഷി ചെയ്യുന്നത് അത് കൃഷിക്ക് മുന്നേ പാടശേഖരം ഒരുക്കി വണ്ടി കൊണ്ടുവന്ന് നിലം ഒരുക്കി കളയെല്ലാം മാറ്റി മിക്കവാറും ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന നെൽവിത്ത് ഉപയോഗിച്ച് ആണ് ഞങ്ങൾ വിതയ്ക്കുന്നത് കൂടുതൽ ഉൽപ്പാദനശേഷിയുള്ള നെൽവിത്താണ് ഞങ്ങൾ പ്രയോഗിക്കുന്നത് കൂടാതെ മൂന്ന് പ്രാവശ്യം വളമിടും കള കളനാശി ഞാൻ ഉപയോഗിക്കും പണിക്കാരുടെ ഷോർട്ടേജ് കൊണ്ട് കൂടുതൽ ആളെ കിട്ടാത്തത് കൊണ്ടും കളനാശിയാണ് കൂടുതൽ ആയിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ കൂടുതൽ നടാനായിട്ടും പറിച്ച് നടനായിട്ടും എല്ലാം ഞാൻ കൂടുതലായിട്ട് ബംഗാളികളെ ഇപ്പോൾ സാധാരണയായി കിട്ടുന്നുള്ളൂ നാട്ടിൽ ഉള്ളത് കൃഷിക്കാരെ മലയാളികളെ ഒന്നും ഇപ്പോൾ നമുക്ക് കിട്ടാൻ സാധ്യത കുറവാണ് അതുകൊണ്ട് ബംഗാളിയാണ് കൂടുതലായിട്ടും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പണികളെല്ലാം നൂറ്റ് ദിവസം കഴിയുമ്പോൾ ഈ നെല്ല് കൊയ്ത് മെതിച്ച് ഈ നിലം മെഷീൻ കൊണ്ടാണ് കൊയ്യുന്നത്